നിങ്ങൾക്ക് പിന്നെ കേരളത്തിൽ എവിടെ വന്നാലും റെസ്റ്റോറൻറ്റുകൾ കിട്ടും നിങ്ങൾ എവിടെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത് ഓക്കേ ഓക്കേ നമുക്ക് ഇവിടെ പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇവിടേക്ക് വരുവായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ നിങ്ങടെ ഇഷ്ടത്തിന് ഫുഡ്ഡ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇണ്ടാക്കി തരാൻ പറ്റും ഇവിടെ നമ്മുടെ കേരളത്തിൻ്റ ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇടിയപ്പം പിന്നെ പുട്ട് കടലക്കറി കള്ളപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെയാണ് അതേ അതേ അതേ പുട്ട് അപ്പം ഇടിയപ്പം നൂൽപ്പുട്ട് കള്ളപ്പം പിന്നെ വെജ് ആണോ നോൺവെജ് ഒക്കേ ആണോ നിങ്ങൾ എന്താണ് നിങ്ങക്ക് അതിന്റെ കൂടെ കഴിക്കാന് വെജ് ആണോ അപ്പം നമുക്ക് സ്റ്റൂവോ അങ്ങനേ എന്തെങ്കിലും ഒക്കേ ആക്കാം അതായത് കടലക്കറി ഉണ്ട് പിന്നെ കടലക്കറി ഉണ്ടാവും പിന്നെ ഗ്രീൻപീസ് കറി ചെറുപയർ ചെറുപയറും പിന്നെ പുട്ടും പിന്നെ പപ്പടം ഒക്കേ ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണ് ഓക്കേ സാറ് എവിടിന്നാണ് വിളിക്കുന്നത് ഓക്കേ ഓക്കേ ആ ഇവിടെ ഞാനൊരു എന്തൊക്കേ ആണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നതെന്നൊക്കേ ഉള്ളത് വേണമെങ്കിൽ സാറിന് വാട്ട്സ്ആപ്പ് ചെയ്യാം സാറ് ചൂസ് ചെയ്താൽ മതി എന്താണ് എന്തിൻ്റ കൂടെ ആണ് വേറെ ഏത് കഴിക്കാനാണ് ഇഷ്ടംന്നുള്ളത്

ഓക്കേ അങ്ങനെ ചെയ്താൽ മതി ഇവിടേ ചോറ് ഉണ്ട് ഇറച്ചിച്ചോർ ഉണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് നെയ്ച്ചോറ് സാറിന് എന്താണോ ഇഷ്ടം എല്ലാം ഉണ്ട് സാറിന് ഇഷ്ടത്തിന് എന്താണോ പറയുന്ന അത് നമുക്ക് പ്രിപ്പേറ് ചെയ്ത് തരാൻ പറ്റും വെജ് ഐറ്റം ആണെങ്കിൽ നമുക്ക് സദ്യ സദ്യ നോക്കാം പിന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാവും അതു നോക്കാം ഓക്കേ സാറ് പറഞ്ഞാൽ മതി ഓക്കേ ഓക്കേ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്യാട്ടോ